അടുത്ത കുറച്ച് വർഷങ്ങളിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധ്യത ഉള്ളത് എനിക്ക് തോന്നുന്നത് ഇതാണ് എ ഐ ആണ് ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് വരുന്നതോടുകൂടി എൻ്റെ ജീവിതത്തിലൊക്ക മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് അതിനോട് പറയും അപ്പൊൾ അത് തന്നെ ചെയ്ത് തരും പിന്നെ എന്താണ് എൻ എന്ത് ചെയ്യണം പിന്നെ എന്തൊക്കെ ഇപ്പോൾ ഒരു പാട്ട് ഇടാനാണെങ്കിൽ അതിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പാട്ട് ഇടും പിന്നെ പിന്നെ എന്തെങ്കിലും ഒക്കെ റെസിപ്പി നമുക്ക് അറിഞ്ഞുകൂടാ കൂട്ട് ഇതിൽ പാചകക്കൂട്ട് അറിഞ്ഞുകൂടെങ്കിൽ അത് പറഞ്ഞ് തരും പിന്നെ കൂടുതലും ആൾക്കാർ ഇനി ഭാവിയിൽ മടിയന്മാർ ആവാനുള്ള സാധ്യതയുണ്ട് വരും വർഷങ്ങളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം പിന്നെ മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ട് മെഡിക്കൽ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഈ എന്തോ ഈ കുറച്ച് നമ്മുടെ ജീ ജീവൻ സുരക്ഷ അതിനുള്ള കുറച്ച് സംഭവങ്ങൾ പിന്നെ ത്രീ ഡി പ്രിൻറിങ്ങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതെന്ന് പറയുമ്പോൾ ത്രീ ഡി പ്രിൻറർ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇനി ഉണ്ടാവാനും ഉണ്ടാക്കാനൊക്ക സാധ്യതയുണ്ട് പിന്നെ എൻ്റെ വ്യക്തിജീവിതത്തിൽ ഇത് എത്രമാത്രം ബാധിക്കും എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ് എന്തായാലും നമ്മുടെ ഒരുപാട് ബാധിക്കാൻ സാധ്യത ഉള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കിയുള്ള ടെക്നോളജികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ടെക്നോളജി എന്തായാലും നല്ലതുപോലെ നമ്മടെ ജീവിതത്തെ സ്വാധീനിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻറലിജൻസ്